ഹലോ ഞാ ഞാനേ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കണയായിരുന്നു അപ്പോൾ കേരളത്തിലെ കേരളത്തിലെ മെയിനായിട്ടുള്ള ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ ആ വരാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തില് കാണാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു

ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ ഇത് ഈ ഉത്സവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുമല്ലേ ഓക്കെ ഓക്കെ ഇപ്പോൾ സീസൺ കഴിഞ്ഞോ അതൊരു മൂന്ന് മാസം മൂന്ന് മാസത്തെ പാക്കേജിനാണ് ഞങ്ങള് വരുന്നത് ആ കഴിയുമല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങള് ഫെബ്രുവരി ഒരു ലാസ്റ്റിന് ഫെബ്രുവരി ഒരു ഫസ്റ്റിന് വരാം നമ്മൾ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ വിളിക്കാം വരുമ്പോൾ ആ ഓക്കെ മ്